ഞാൻ പൂന്തോട്ട പരിപാലനത്തിനായിട്ട് മൺവെട്ടി കൈമാന്തി ചവറു വരണ്ടി പിന്നെ അത് നനച്ച് കൊടുക്കാൻ വേണ്ടീട്ട് ഒരു പാത്രം മുതലായ ഉപകാരണങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് മൺവെട്ടി ചെടിച്ചട്ടിയിൽ മണ്ണ് ഇളക്കി എടുക്കുന്ന ഇളക്കി ചെടിച്ചട്ടിയിൽ നിറക്കുന്നതിനും ചെടിച്ചട്ടിയിൽ നിറക്കുന്നതിന് ഉപയോഗിക്കുന്നു ഇപ്പം കൈമാന്തി അത് ചെറിയ കയ്യുടെ ഷേപ്പിലുള്ളൊരു ഉപകരണമാണത് ചെടിയുടെ ചോടിളക്കി വളമൊക്കെ ഇട്ടു കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചവറു വരണ്ടി ചവറൊക്കെ വരണ്ടീട്ട് നമുക്ക് അതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാനാണ് നമുക്ക് ഉപയോഗിക്കുന്നത് അപ്പം അതു വഴി നമുക്ക് ചെടികൾ നല്ല നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് സഹായിക്കും ഇപ്പം നമുക്ക് കൈമാന്തിയാണെങ്കിൽ ആഴ്ചയിലൊരിക്കൽ നമുക്ക് ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ മണ്ണിളക്കി കൊടുക്കുവോം ആവശ്യത്തിന് വളമിട്ട് കൊടുക്കുന്നതിന് ഇത് വളരെയധികം സഹായകമാണ് മാത്രമല്ല അതിൻ്റെ ചോട്ടിൽ കളകളുണ്ടെങ്കിൽ നമുക്ക് അതിളക്കി കളയുന്നതിനും ഈ കയ്യുടെ ഷേപ്പിലുള്ള ഈ ഉപകരണം നമുക്ക് വളരെയധികം ഉപയോഗിക്കാവുന്നതാണ്